ഹലോ ഹലോ ഇതാരാണ്

തയ്ക്കാൻ എന്താവുന്നോ തുണി തുണി തുണിയൊക്കെ തന്നിട്ടാണോ ആ തുണിയൊക്കെ തന്നിട്ട് ഒരു കുട്ടിൻ്റെ ഡ്രെസ്സ് അടിക്കുന്നതിന് ഒരു അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയാകും ആൺകുട്ടികളുടേതാണോ പെൺകുട്ടികളുടേതാണോ ആൺകുട്ടികളുടേതാണ് ആ ഒരു കുട്ടിക്ക് പിന്നെ അഞ്ഞൂറ് രൂപയാകും

അല്ലെങ്കിൽ അവരുടെ ഡ്രെസ്സ് കൊണ്ടുവന്നാലും മതി ഏതെങ്കിലും നല്ല ഡ്രെസ്സ് കൊണ്ടുവന്നാൽ അത് നോക്കിയിട്ട് അതുപോലെ അടിച്ച് തരാം അപ്പോൾ എപ്പം എപ്പഴത്തേക്കാണ് വേണ്ടത് അടിച്ചിട്ട് എപ്പോൾ വേണം തുണി തയിച്ചിട്ട് എപ്പോൾ തരണമെന്ന് സ്കൂൾ ജൂൺ മാസം ആ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഓ അതൊക്കെ അതൊക്കെ റെഡിയാക്കി തരാം ഓ ആയിക്കൊട്ടെ ആയി ഇരുപത്തി അഞ്ചിന് എന്നാൽ പിന്നെ കുട്ടികളേയും കൊണ്ട് നാളെ രാവിലെ വന്നാൽ മതി ഒരു എട്ട് ഒമ്പത് ഒമ്പതരയാകുമ്പോൾ വന്നാൽ മതി അപ്പോൾ അന്നേരം കട തുറക്കും ആ എന്നാ അവിടെ ഞാനില്ലെങ്കിലും വേറെ ആൾക്കാരുണ്ടാകും കുറെ ആൾക്കാരെ തയ്യിക്കാനുണ്ട് അപ്പോൾ വേഗം കൊണ്ട് തരണം ഓരോ സ്കൂളിൽ നിന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ വേഗം കൊണ്ട് തന്നാൽ ഫസ്റ്റ് അടിച്ച് തരാം നിങ്ങൾക്ക് കേട്ടോ ലത ടെയ്ലേഴ്സ് ലത ടെയ്ലേഴ്സ് അത് ഇവിടെ കോളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ആ എന്നാൽ എന്നാൽ ശരി എന്നാൽ ശരി നാളെ കൊണ്ട് വന്നാൽ മതി ശരി എന്നാൽ കുട്ടികളേയും കൂട്ടി വന്നാൽ മതി ആ ശരി ശരി